ആ അതെ പറഞ്ഞോളൂ ആ ഓക്കെ

ആ അപ്പം എത്ര ലക്ഷം ഉണ്ട് വാർഷിക വരുമാനം വരുന്നത് ആ അപ്പം എങ്ങനത്തെ രീതിയിലുള്ള വണ്ടി എടുക്കാൻ വേണ്ടീട്ടായിരുന്നു ആ അപ്പോരു എത്ര എമൗണ്ട് വേണ്ടി വരും ആ ഓക്കെ കിട്ടായ്ക ഒന്നുല്ലാ ആ പിന്ന നിങ്ങക്ക് വല്ല സ്ഥലോ അങ്ങനെ എന്തേലൊക്കെ ഉണ്ടോ ആ ഗോൾഡോ

ആ അപ്പം സ്ഥലം എത്ര വരുന്നുണ്ട് ആ അപ്പം അതിൻ്റ കോപ്പി വേണ്ടി വരും പിന്നെ നിങ്ങക്ക് എന്താ പറയുക ഇത്ര ശതമാനം പലിശ കാർഷിക വായ്പ എടുക്കുമ്പം നാല് ശതമാനം പലിശ ആണ് വരിക ആ ഗോൾഡിനാണെങ്കില് ഒര് ഒരു ശതമാനം കൂടെ കൂടും ആ അപ്പം ഏതാ വേണ്ടേച്ചാ തീരുമാച്ചോളുക പിന്നെ നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് ഇല്ലല്ലൊ ആ അക്കൗണ്ട് എടുക്കണം അക്കൗണ്ട് എടുക്കാൻ നാല് ഫോട്ടോ വേണം പിന്ന പാൻകാർഡ് ഉണ്ട് പാൻകാർഡ് വേണം പിന്ന ആധാർ ആധാർ കാർഡിൻ്റ കോപ്പി കോപ്പിയോ ഒറിജിനലോ എന്തായാലും മതി ആ അത് എടുക്കണം പിന്നെ വേറെ എന്തെങ്കിലും എന്താ പറയുക ചെക്ക് ബുക്ക് ഇപ്പം നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് എടുക്കുന്നോണ്ട് ചെക്ക് ബുക്ക് കൂടെ എടുക്കുന്ന നന്നായിരിക്കും ഇനി ഇപ്പം വേറെ എന്തേലും ആവശ്യം വരുവാണെങ്കില് ആ ഇപ്പം ആ വേറെ എന്താ വെച്ച് കഴിഞ്ഞാല് ലോണ് എടുക്കുമ്പം വർഷത്തേക്ക് വേണെങ്കിൽ അടക്കാം അല്ലെങ്കില് ഇപ്പം നിങ്ങക്ക് ഉള്ള പോലെ അടയ്ക്കാം ഇപ്പം വർഷ മാസ അടവ് വേണമെങ്കിൽ വെക്കാം അല്ലെങ്കില് ഇപ്പ ആറ് മാസം കൂടുമ്പം അല്ലെ ഒരു വർഷത്തേക്ക് അങ്ങനെ അടവ് ഉണ്ട് അങ്ങനെ വേണേൽ ആ അടവാക്കാം ഇപ്പം ഡൗൺ പേ എന്താ പറയുക നമ്മള് ഇപ്പം കാറിന് പൈസ കൊടുക്കുന്ന ഒന്നിന് ചെക്കായിട്ട് ആയിരിക്കും ചെക്ക് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടീട്ട് ബാങ്കിലേക്ക് വരേണ്ടി വരും കയ്യിലേക്ക് എമൗണ്ട് തരില്ല ചെക്ക് വഴി ആയിരിക്കും തരിക ആ പിന്നെ എന്തെങ്കിലും അറിയണോ ആ നാളെ വന്നാൽ ശരി ആക്കാം ആ നാളെ ഓപ്പൺ ആണ്